ഞാന് തമിഴ്നാട്ടില് പോയപ്പോൾ തമിഴ്നാട്ടിൽ കോയമ്പത്തൂര് ഒര് ഹോസ്പിറ്റല് കേസ് സംബന്ധിച്ച് ഹോസ്പിറ്റൽ കേസിനുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയ നമ്മൾ ഇവിടെ കോയമ്പത്തൂര് പോയി അപ്പോൾ അവിടുത്ത ഭാഷ തമിഴാണല്ലോ നമുക്ക് തമിഴ് അത്ര അങ്ങോട്ട് അറിയില്ല സംസാരിക്കുമ്പോൾ ഒപ്പിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നല്ലാതെ കൂടുതല് അവര് വെൽ പറയണത് അങ്ങനെ അങ്ങട് മനസിലാകുകയില്ല പക്ഷേ അവിടെ ഒരു ഹോസ്പിറ്റലിൽ രണ്ട് മൂന്ന് ദിവസം ഒക്കെ നിന്നൊര് എക്സ്പീരിയൻസുണ്ട് അപ്പോൾ നമ്മള് കുറച്ചൊക്കെ നമ്മൾ ആ ആംഗ്യ ഭാഷയിലൂടെയൊക്കെ അങ്ങോട്ട് പറയുമ്പോൾ എനിക്കും അവർക്കും മനസ്സിലാവും ആ പിന്നെ കടകളിലൊക്കെ പോകുമ്പോൾ അവരോട് നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് നമ്മള് പറയുന്നത് അത്ര അങ്ങോട്ട് വ്യക്തം ആകില്ല അപ്പോൾ ആ നമ്മള് അങ്ങനെ ആംഗ്യമൊക്കെ ആയിട്ട് ആംഗ്യ ഭാഷേലൂടെ ഇങ്ങനെ കാണിച്ച് മനസ്സിലാക്കി നമ്മള് കാര്യങ്ങളും നടത്തുന്നുണ്ട് എങ്ങനെ എങ്കിലുമായിട്ട് ജീവിക്കണ്ടേ നമ്മളെ ആ സാഹചര്യത്തിൽ എങ്ങനെ എങ്കിലുമായിട്ട് മുന്നോട്ട് നീങ്ങണമെന്നുള്ള ചിന്താഗതിയില് മുന്നോട്ട് പോവും ആംഗ്യ ഭാഷ എന്നത് എല്ലാ ഭാഷക്കാർക്കും അറിയും ഒരു വിധം ആംഗ്യങ്ങളൊക്കെ കാണിച്ച് നമുക്ക് പിടിച്ച് നിൽക്കാൻ വയ്ക്കും അങ്ങനെ ഒക്കെ ഒപ്പിച്ച് പോവാം